ഞാനൊരു പാചകമത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കുടുംബശ്രീൻറ്റെ വക എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പത്ത് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഉള്ളൊരു മത്സരമായിരുന്നു അതെല്ലാവരും അടുത്തുള്ളവരും എല്ലാവരും പങ്കെടുത്തിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ബിരിയാണിയാണ് ഉണ്ടാക്കിയത് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഭഷണമാണ് എല്ലാവാരും ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അതിൽ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കുറച്ച് ചിക്കന് ചിക്കൻ കഴുകി ഒരു ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോന് അറിയും പാടെ ഇട്ടിട്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിനത് എൻ്റെ ചിക്കൻ ഞാൻ പൊരിച്ചിട്ടാണ് വെച്ചത് മറ്റുള്ളവരൊക്കെ സാധാമാതിരി പൊരിക്കാതെയാണ് വെച്ചത് ഞാൻ ചിക്കൻ പൊരിച്ചതിൽ മഞ്ഞപ്പൊടി മുളകുംപൊടി കുറച്ച് ഗരംമസാല ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം അതൊക്ക അരച്ച് ചേർത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് പിന്നെ നന്നായി കുഴച്ച് കുറച്ച് നേരം വെച്ച് എന്നിട്ട് പൊരിച്ചിട്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയത് ആദ്യം ചിക്കൻ നല്ലവണ്ണം ഉള്ളി ഉള്ളി ഉള്ളി അരിഞ്ഞ് ആദ്യം ഉള്ളി നല്ലവണ്ണം വാട്ടി പിന്നെ തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് തൈര് പിന്നെ ബിരിയാണീൻറ്റെ മസാലപ്പൊടി എല്ലാം ചേർത്തിട്ട് ഈ പൊരിച്ച ചിക്കന് അതിൽക്ക് ഇട്ടിട്ട് അരി വേറെ വേവിച്ച് ചിക്കൻറ്റെ മോളിൽക്കിട്ട് ദമ്മിട്ട് അങ്ങനെ കുറച്ച് നേരം ഒരു അര മണിക്കൂറോളം ദമ്മിട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് അത് ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നിരുന്നു ഒരു അര മണിക്കൂറ് നേരം ദമ്മിട്ട് കഴിഞ്ഞിട്ട് ബിരിയാണി പൊട്ടിച്ച് പിന്നെ എല്ലാവരും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം എല്ലാവർക്കും ഈ ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഇത് വെച്ചത് ചോദിച്ചു അപ്പോൾ പിന്നെ നല്ല രസം ഉണ്ടല്ലോ നന്നായിട്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചിക്കൻ കുറച്ച് പൊരിച്ചിട്ടാണ് എന്തൊക്കെയാ ചിക്കനിൽ കൂട്ടിയത് ചോദിച്ചു അപ്പോൾ കൂട്ടിയ ചേരുവകളൊക്ക പറഞ്ഞു അപ്പോൾ നല്ലവണ്ണം വെന്ത് നല്ല അടിപൊളിയായിട്ട് ഒക്കെ വൃത്തിയിൽ നല്ല രസത്തിൽ അണ്ടിപരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് പിന്നെ വൃത്തിക്ക് വെച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാവരും ടേസ്റ്റ് ചെയ്തു അപ്പോൾ അതിലൊരു സമ്മാനം ഉണ്ടായിരുന്നു പിന്നെ അത് ഫസ്റ്റ് അടിക്കുന്നവർക്ക് ഒരു കുക്കർ ആയിരുന്നു പിന്നെ അതിൻറ്റെ താഴെയുള്ള ചെറി ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമ്മാനം എനിക്ക് കിട്ടി പിന്നെ ബിരിയാണി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ മറ്റുള്ളവരുടെ ബിരിയാണിയും കുഴപ്പം ഉണ്ടായിരുന്നില്ല എല്ലാവരുടേതും നല്ല രസമുണ്ടായിരുന്നു പൊരിച്ച് വെച്ചതുകൊണ്ട് കുറച്ചുംകൂടി ഒരു മറ്റേ ബിരിയാണീനേക്കാട്ടിലും കുറച്ചുംകൂടി ഒരു ടേസ്റ്റ് തോന്നി അതുകൊണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഉഷാറായി